വിനോദ വാർത്തകളില് ഞാൻ ശ്രദ്ധിക്കാറുണ്ടോന്ന് ചോദിച്ചാല് ക്രിക്കറ്റ് സ്പോർട്സില് സംബന്ധമായ വാർത്തകൾ കേൾക്കാൻ താൽപ്പര്യമുണ്ട് ശ്രദ്ധിക്കാറുമുണ്ട് പിന്നെ ബോളിവുഡിലാണെങ്കിൽ സിനിമ കാണാറുണ്ട് ഹിന്ദി സിനിമ കാണാറുണ്ട് ഹിന്ദി സിനിമയിൽ ഷാരുഖാൻ സൽമാൻ ഖാൻ അവരുടെ ന്യൂസുകള് അല്ലെങ്കിൽ അവര് പങ്കെടുക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ കാണാൻ താൽപ്പര്യം കാണിക്കാറുണ്ട് പിന്നെ പൊതുവേ താൽപ്പര്യം രാഷ്ട്രീയം അതെ രാഷ്ട്രീയത്തിലതീതമായ നമ്മുടെ ഗവണ്മെൻറ്റ് ഭരിക്കുന്ന ഗവണ്മെൻറ്റിലെ രാഷ്ട്രീയം ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കില് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്രീയ പാർട്ടികളുടെ പറ്റിയുള്ള വാർത്തകൾക്ക് വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കാറും സംസാരിക്കാറുണ്ട് കേൾക്കാറുണ്ട് കാണാറുണ്ട് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളില് വാട്സ് ആപ്പ് ഫേസ് ബുക്ക് യൂസ് ചെയ്യാറുണ്ട് വാട്സ് ആപ്പ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഞങ്ങളുടെ ഫാമിലിയുടെ കുടുംബത്തിൻ്റേതായിട്ടും സുഹൃത്ത് ബന്ധങ്ങളെക്കെ ആയിട്ടും ഒത്തിരി ഗ്രൂ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളില് പങ്ക് വക്കാറുള്ള മെസ്സേജ്കള് വായിക്കയും പിന്നെ വീഡിയോകൾ കാണുകയും ഷെയര് ചെയ്യുകയും ചെയ്യാറുണ്ട് ബാക്കി ഫേസ്ബുക്കുകളില് ഫേസ്ബുക്ക് ഓപ്പൺ ആണല്ലോ അപ്പോള് ഫേസ്ബുക്കുകളില് ഒത്തിരി വാർത്തകൾ കാണാറുണ്ട് കേള്ക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് നന്നായിട്ട് പൊതുവെ നമ്മൾക്ക് രാഷ്ട്രീയ വാർത്തകള് അല്ലെങ്കില് ഗവണ്മെൻറ്റ് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ തിരിക്കുന്ന വാർത്തകൾ കേള്ക്കാനാണ് താൽപ്പര്യം